ഞാനാ ഫാമിലീ ടെക്സ്റ്റെയിൽസ്ന്നൊരു ഷർട്ട്ട്ത്തിട്ടെ അത് കളറ് പോയിട്ട് വയ്യത് രണ്ട് ഒരലക്കലക്കിയെപ്പോക്ക് ആകങ്ങട്ട് നരച്ചു ഷർട്ട് ഏഹ് ആകെങ്ങട്ട് കളറൊക്ക പോയി നരപ്പായി ഇനിപ്പോരു പരിപാടിക്ക് ഇടാൻ പറ്റൂലത് ഒറ്റ ദിവസം ഒരു പരിപാടിക്ക് ഇട്ടു അലക്കിയതോട് കൂടി അതിന്റെ കഥ കഴിഞ്ഞു എന്താപ്പയിന് എണ്ണൂറുപ്പ്യക്ക് വാങ്ങിയ ഷർട്ട എണ്ണൂറുപ്പ്യ ആയി ആ ഷർട്ടിന്

എണ്ണൂറുപ്പ്യക്ക് വാങ്ങിയ ഷർട്ടെ ഒരൊറ്റ അലക്ക് അലക്കിയപ്പോക്ക് ആകെപ്പാടങ്ങട് നരച്ചു ആകെ തുണിയൊക്കെപ്പാടെ അത് ഇത് പത്തിരുന്നൂറ്പ്പ്യൻറ്റെ ഷർട്ടൊക്കേവുവത് എണ്ണൂറുപ്പ്യൻറ്റെ സ്റ്റിക്കറൊക്കങ്ങട് ഒട്ടിച്ചത് കൊണ്ടേ എണ്ണൂറുപ്പ്യാണ് അവർ വാങ്ങിയത് ഇതെന്താപ്പൊ ഇതൊക്കവസ്ഥ